ഹലോ ഞാൻ പ്ലയിറ്റ് ബുക്ക് ചെയ്തിരുന്നല്ലോ നിങ്ങളാ പിന്നെ എൻ്റെ പേരെന്തിനാ പിന്നെ തെറ്റായി എഴുതിയത് കാരണം എൻ്റെ പേര് പിന്നെ തെറ്റാണല്ലോ നിങ്ങൾ എഴുതിയത് എൻ്റെ പൈസല്ലേ പോവുക നിങ്ങളിങ്ങനെ തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും യാത്ര പോകാന്ന് ഞാൻ അവിടെ വന്നവിടെ കിടക്കല്ലേ ചെയ്യേണ്ടത് എനിക്ക് പോവാൻ പറ്റുവോ ഞാൻ എപ്പഴാ വീട്ടിലെത്തുക ഇനി ഞാനിപ്പ അവിടെ കാത്തിരിക്കല്ലേ അപ്പളാണ് എൻ്റെ പേര് അവിടെ ഇല്ല എന്ന് പറയുന്നത് അവർ ഞാനിനി എന്ത് ചെയ്യും വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇനി ഇപ്പം ഇന്ന് പോകാൻ പറ്റുമോ രാത്രി ആയില്ലേ എനിക്കാണെങ്കിൽ വേറൊരു വണ്ടി കിട്ടും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത് എൻ്റെ പിന്നെ പ്ലേയ്റ്റിൻ്റെ ബുക്ക് ബുക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എൻ്റെ പേര് തെറ്റായിട്ടാണ് എഴുതി കാണിക്കുന്നത് എൻ്റെ ശരിയായ പേര് എഴുതാത്തതിന് കാരണം ഞാനിന്ന് ഇവിടെ കിടക്കും എവിടെ ഉറങ്ങണണന്ന് അറിയില്ല എൻ്റെ കൂടെ ആരും ഇല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും ആരോട് കംപ്ലൈയിൻ്റ് ചെയ്യും ഉപഭോക്തോവ് സേവനത്തിൻ്റെ സേവനവുമായി ബന്ധപ്പെട്ട് പെട്ടിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയ്യാ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർ എന്ത് ചെയ്യും അവരും ഇതേപോലെ വന്ന് കിടക്കുന്നില്ലേ അവരും ഇതുപോലെ തന്നെ ചെയ്യുമോ നിങ്ങൾ പേര് തെറ്റായി എഴുതുമോ ഇനിയിപ്പം എന്ത് ചെയ്യും ഇത് നാളത്തേക്ക് ശരിയായി കിട്ടുമോ നാളത്തേക്ക് റെഡിയായി കിട്ടണം എനിക്കെന്താണെന്ന് വച്ചാൽ പോവേണ്ടതാണ്